ഗ്യാസിനെ പറ്റിയാണ് പറയാൻ ഗ്യാസ് നല്ലതാണ് ഗ്യാസുകൊണ്ട് എൻ്റെ ജോലി എല്ലാകാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നുണ്ട് അടുപ്പിലാണ് എന്നെങ്കിൽ നമ്മൾ ഊതിയും അടച്ചും എല്ലാം വരണം അതിനേക്കാട്ടി എളുപ്പം ഗ്യാസാണ് നല്ലത് ഗ്യാസിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും കറികളും ഫുഡ് ഐറ്റം എല്ലാം വെക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് നല്ല ഉപയോഗമാണ് കുറക്കാനും കൂട്ടാനും എളുപ്പമാണ് നമുക്ക് അടുപ്പിലാവുമ്പോൾ നമുക്ക് ഫുഡ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റത്തില്ല ഗസ്റ്റുകൾ വന്നാലും നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല നമുക്കൊരു ചായ അനത്താനായാലും പെട്ടെന്ന് ഗ്യാസ് ഓൺ ആക്കിയും ഓഫ് ആക്കിയും ചെയ്യാം പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാം ഊതി നമ്മുടെ അടുപ്പിനാണ് എങ്കിൽ നമ്മൾ ഊതി ഊതി ഊതി നമുക്ക് ശ്വാസം മുട്ടലും എല്ലാം സംഭവിക്കും പുകയും എല്ലാം അതുകൊണ്ട് നമുക്ക് കരിയും കരിയും നമ്മുടെ ഡ്രസ്സുകളും എല്ലാം മുഷിയും നമുക്ക് ഗ്യാസുകൊണ്ട് നല്ല ഉപയോഗമാണ് നമുക്ക് രാത്രിയിലായാലും ഒന്ന് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓൺ ആക്കി ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി നമുക്ക് കുടിക്കാം അതുകൊണ്ട് എന്തുകൊണ്ടും ഗ്യാസ് നല്ലതാണ്